കണ്ണൂർ ജില്ലയിലെ കാലാവസ്ഥാന്ന് പറഞ്ഞാൽ പൊതുവേ ഇവിടെ ചൂട് കൂടുതലാന്ന് എന്നാലും മഴയും ഉണ്ട് മഞ്ഞും എല്ലാ എല്ലാം കൊണ്ടും നല്ലൊരു കാലാവസ്ഥ ഉള്ളതായിട്ട് തന്നെയാണ് തോന്നീട്ടുള്ളത് ചൂട് കുറച്ച് കൂടുതലാങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ചൂടൊന്നും ഉണ്ടാവില്ല എന്നാലും ചില വർഷം ഒരു മുപ്പത്തി മൂന്ന് ഡിഗ്രി വരെ അങ്ങനെയെല്ലാം പോയിട്ടണ്ട് എന്നാലും നമുക്ക് കഠിനമായ ഒരു വരൾച്ചാന്ന് പറയാൻ അതക്കെ മുൻപെ മുൻപെ ഉള്ള വർഷങ്ങളിലെപ്പൊഴോ ഉണ്ടായതല്ലാണ്ട് ഈ അടുത്ത കാലത്തൊന്നും നമക്കൊരു കഠിനമായ വരൾച്ച ഒന്നും ഉണ്ടായിട്ടില്ല വെള്ളപ്പൊക്കം ഞാൻ ഞാൻ നിൽക്കന്നത് ഒരു തോടിൻറ്റെ അടുത്താന്ന് അപ്പം ആ തോട്ടിൽ വെള്ളം കയറി നമ്മൾ മതിലിൻറ്റെ അത്ര വരെ ഒക്കെ ഉണ്ടാവും പക്ഷേൽ ഒരു വെള്ളപ്പൊക്കം കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് വീട്ടിലൊന്നുംല്ലാ പക്ഷെ നമ്മൾ നടന്നു പോകുന്നത് നമ്മൾ ടൗണിലേക്കും കുട്ടികൾ സ്കൂളിലേയ്ക്കെല്ലാം നടന്ന് പോകുന്നത് ഒരു വയലിലേക്കൂടിയാനെ അപ്പം ഈ വയലിലെ ആനികളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പം ഭയങ്കര ബദ്ധിമുട്ടായിരിക്കും ചളി ആയിരിക്കും അപ്പം ഈ നല്ല ഡ്രെസ്സെല്ലാം ഇട്ട് പോവുമ്പോൾ നമുക്ക് നമുക്ക് വഴി കാണൂല്ലാ വെള്ളം കയറിയിട്ട് നമുക്ക് വഴി കാണൂല്ല പുല്ലും ഉണ്ടാവും അതുകൊണ്ട് അത് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അല്ലാണ്ട് നമ്മൾ റോഡിലും അങ്ങനെ ഒന്നും ഒരുപാട് വ് വീട്ടിലേയ്ക്ക് വെള്ളം കയറുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ വയലിലേക്കൂടി പോകുമ്പോൾ നമുക്ക് വെള്ളം കയറിയിട്ട് വഴി കാണൂല്ല അത് ഈ ചെറിയ കുട്ടികൾളാകുമ്പോൾ നമ്മൾ വീട്ട്കാർ രക്ഷിതാക്കൾ ഈ കുട്ടികളെ ഒന്ന് ആ വയൽ കടത്തി സ്കൂളിലോ അല്ലെങ്കിൽ റോഡിനോ വണ്ടീടടുത്ത് എത്തിക്കേണ്ടി വരും പിന്നെ ശൈത്യംന്ന് പറയാ ശൈത്യം നമുക്കൊരു നമുക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു തണുപ്പല്ലെ നമുക്കുള്ളു നവമ്പർ ഡിസാംബർ ആ സമയത്ത് കുറച്ച് മഞ്ഞുണ്ടാവും അ നല്ലൊരു നല്ലൊരു കാലാവസ്ഥയാന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാലാവസ്ഥയാന്ന് അതല്ലാത് നമുക്കൊരു സഹിയ്ക്കാൻ പറ്റാത്ത തണുപ്പ് എന്ന് പറയാനൊന്നും അതൊന്നും ഇല്ല പിന്നെ ജൂലൈല് മഴ മഴ സ്റ്റാട്ട് ചെയ്യും ജൂലൈല് എന്തായാലും മഴ ഉണ്ടാവും ജൂൺല് ആകുമ്പോൾ സ്റ്റാട്ട് ആകും ജൂലൈല് മഴ ഉണ്ടാവും ഏപ്രിലും മെയിലും ചൂടായിരിക്കും ഏപ്രിലും മെയിലും നമ്മുടെ ചൂട് കാലം വേനൽക്കാലം ആന്ന് തുടങ്ങുന്നത് ഏപ്രില് അങ്ങോട്ടേക്കാകുമ്പളേക്കും ചൂട് കൂടാൻ തുടങ്ങും മെയിലും ചൂട് തന്നെയാണ് ഉണ്ടാവുക അത് മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് എത്തുമ്പോൾ ജൂണില് എത്തുമ്പോൾ മാത്രമേ നമുക്ക് മഴയുണ്ടാവു അതു വരേം നമുക്ക് ചൂട് തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഓഗസ്റ്റില് നല്ല മഴേൻറ്റെ സമയാന്ന് ഓഗസ്റ്റില് ഏപ്രിലും മെയിലും മുപ്പത്തഞ്ച് ഡിഗ്രിയോളം താപനില ആയിട്ടണ്ട് അ പിന്നെ ജൂൺ ജൂലൈയില് ചെറുതായി മഴ പെയ്ത് ഓഗസ്റ്റ് നല്ല മഴേൻറ്റെ മാസമാണ് ഇതാണ് ഇവിടെ കണ്ണൂർ ജില്ലേലുള്ള കാലാവസ്ഥ